ആരോഗ്യത്തെ കുറിച്ചു പറയുവാണെങ്കിൽ നമ്മളെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൃത്തി ആണ് മെയിനായിട്ട് അപ്പോൾ നമ്മള് രാവിലെ കുളിച്ചു അതായത് ഇപ്പം ഹിന്ദു മതത്തിലാണ് മെയിനായിട്ട് രാവിലേ എല്ലാവരും കുളിക്കുന്നത് അതായതു ഇപ്പൊ അവരു അമ്പലത്തിലൊക്കെ പോവാണെങ്കിൽ തന്നെ കുളിച്ചിട്ടു ഒക്കെ ആണ് പോകുവ വൃത്തി മെയിൻ ആണ് പിന്നെ ഹിന്ദു മതത്തിൽ അല്ലങ്കിലും ഇപ്പൊ ക്രിസത്യായാനികൾ ആണെങ്കിലും തന്നെ അവര് പള്ളിയിൽ ഒക്കെ പോകുമ്പോഴും കുളിച്ച് നല്ല വൃത്തിയായിട്ട് ആണ് പോകുക അതുപോലെ മുസ്ലിംസിനും അങ്ങനെ തന്നെ ആണ് അവര് അവിടെ പോയാലും അവര് വൃത്തിയായിട്ടു കഴുകി കാൽ എല്ലാം കഴുകി അങ്ങനെ ഒക്കെ ആണ് പോകുന്നത് അപ്പൊ ആരോഗ്യമെപ്പോഴും മെയിൻ ആയിട്ടുള്ള കാര്യം ആണ്